നിലവില് ഇന്ത്യൻ ആരോഗ്യ സംരഷണ സംവിധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇന്ത്യയില് കേരളത്തില് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്ത് നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഹോസ്പിറ്റല് കാര്യങ്ങളോ ഹോസ്പിറ്റല് ഉണ്ടെങ്കിൽ തന്നെ അതിന് ആവശ്യമുള്ള മെഷീൻസോ അതിനാവശ്യത്തിനുള്ള ഡോക്ടർമാരോ ഒന്നും തന്നെ ഇല്ല ഇപ്പം പെട്ടെന്നൊരാൾക്ക് ഹോസ്പിറ്റലിൽ അസുഖം വന്നു കൂടുതലും ആൾക്കാരും നോക്കുന്നത് സ്വന്തം ചികിത്സയാണ് ഇതും കഴിഞ്ഞ് ബാക്കി എന്തേലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടാണേൽ കാര്യമില്ല ഇവിടെ അതിനുള്ള സംവിധാനം ഇല്ല കൂടുതല് പേരും ഇങ്ങനെ സ്വന്തം ചികിത്സയും കാര്യങ്ങളൊക്കെയാണ് തന്നെ ചെയ്യുന്നത് നിലവിൽ ഇപ്പോൾ കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ പഠിച്ചിറങ്ങിയ ആൾക്കാര് കുറച്ച് കഴിവുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അവര് അവര് നല്ല ബെറ്ററായിട്ടുള്ള ജോലി നോക്കിയിട്ട് പുറത്തോട്ടാണ് പോകുന്നത് അവർക്ക് അവരുടെ ലൈഫ് സെറ്റിൽ ആവുന്ന കാര്യങ്ങള് ബാക്കിയുള്ളവരും നോക്കുന്നു ഇതല്ല കുറച്ച് പൈസയുള്ളവരെന്താക്കും ബെറ്ററായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നോക്കി പോവും ഇതൊന്നും ഒന്നു ഇല്ലാത്ത ആൾക്കാരെ സ്ഥിതി എന്ന് വെച്ചാൽ വളരെ മോശമാണ് ഇപ്പം പെട്ടെന്ന് നമുക്കിപ്പം ഒരിത് വയ്യായ്ക വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിലവിലവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കില് ആവശ്യത്തിന് ഡോക്ടർമാരില്ല അപ്പം അവര് പറയും ഇന്ന് കൊണ്ട് ചെന്നാൽ ഇന്നല്ല നാളെ ആവട്ടെ അല്ലേ മറ്റന്നാള് ഓ പിയിൽ നോക്കട്ടെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും